ഹലോ സാജൻ സാലിമർ ആണോ ചേട്ടാ ഞാൻ ഡെൽഹിവെറിയിൽനിന്നാണെ ഒരു കൊറിയർ ഉണ്ടായിരുന്നു അതൊരു ഒരു മിനിറ്റ് ചേട്ടാ ഞാൻ നോക്കട്ടെ അത് ഒരു ജാക്കറ്റ് ആണെന്ന് തോന്നുന്നു ചേട്ടാ ഇത് അണോ അത് ഇത് ഇത് എവിടെ സ്ഥലം ഇത് എവിടാ ഇത് മാമല പള്ളി കഴിഞ്ഞിട്ടാണോ വി ഇതിപ്പം ചേട്ടായി വീട്ടിൽ എപ്പോൾ എത്തിക്കണം വീട്ടിൽനിന്ന് തിരിച്ച് വീട്ടിലോട്ട് ആണോ വീട്ടീൽ വേറെ ആരെങ്കിലും ഉണ്ടോ ഞാൻ വീട്ടിലെത്തിക്കാൻ ആണോ അത് ചേട്ടാ ഇത് ഞാനിവിടെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റിട്ടേൺ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ അവിടെ അതിൻ്റെ അടുത്ത് വീട്ടുകളിലോ ഇല്ല പേയ്മെൻ്റ് ചെയ്തിട്ടില്ല ക്യാഷ് ഓൺ ഡെലിവെറിയാ കാണിക്കുന്നത് അത് എൻ്റെ നമ്പറിലോട്ട് എനിക്ക് ജീപേ ചെയ്താലും മതി ചേട്ടാ എനിക്ക് വീടിൻ്റ അഡ്രസ്സ് എനിക്ക് ആ ഒരു റൂട്ട് ഒന്ന് എനിക്ക് പറഞ്ഞു തരാമോ ആ അതെ ആ ഒരു കയറ്റം ആണോ

ആ ഓക്കേ ഹലോ ആ ലെഫ്റ്റിലോട്ട് റൈറ്റിലോട്ട് തിരിഞ്ഞ ലെഫ്റ്റിലോട്ടാണോ റൈറ്റിലോട്ടാണോ

ആ മോളിലോട്ട് പോയിട്ട് പച്ച കളർ ആല്ലേ ഓപ്പോസിറ്റ് ഉള്ള വീടിൻ്റെ ചേട്ടാ പേരോ എന്തെങ്കിലും ഉണ്ടോ അവിടുത്തെ എന്തെങ്കിലും മാളിയേക്കൽ ഒക്കെ അലോ ഹലോ ആ ഓക്കെ ആ മാളിയേക്കൽ വീടിൻ്റെ ചേർന്ന് കിടക്കുന്ന റോഡ് ചെറിയ വഴി ആണോ

അപ്പം ഞാൻ എവിടാ മാളിയേക്കൽ വീട്ടിൽ ആ മാളിയേക്കൽ എന്ന വീട്ടിൽ കൊടുത്താൽ മതിയോ ചേട്ടാ പേയ്മെൻ്റ് എങ്ങനെയായിരിക്കും എൻ്റെ നമ്പര് ഒന്ന് എഴുതി എടുക്കാമോ നയൻ ഫോർ നയൻ സെവൻ ടു നയൻ ഫൈ സിക്സ് സെവൻ ഫോറ് ശ്ശെ നയൻ ഫോർ നയൻ സെവൻ ടു നയൻ ഫൈ സിക്സ് സെവൻ ഫോർ ആ ചേട്ടാ ഈയ് പേയ്മെൻ്റ എഴുന്നൂറ്റി മുപ്പത്തിനാല് ആണേ ഏഴ് മൂന്ന് നാല് ആഹ് എന്നാൽ പേയ്മെന്റ്റ് ചെയ്തിട്ട് എന്നെയൊന്ന് തിരിച്ചൊന്ന് വിളിച്ചെക്കാവോ ആ ഒന്നു ചെയ്തേക്കണേ ആ ആ ഓ അപ്പം ചേട്ടാ ഞാൻ എന്നാൽ അവിടെ കൊടുത്തേക്കാം ഞാൻ കൊടുത്തിട്ട് ഞാൻ എന്നാൽ വിളിച്ചേക്കാമേ ഒരു മിനിറ്റെ ആ ഓക്കേ ഓക്കേ വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തായാലും അവിടെ കൊടുത്തേക്കാം അവിടെ ആരാ മാളിയേക്കൽ വീട്ടിൽ ആരാ ഉള്ളത് ആരെ ആരുടെയിലാണ് കൊടുക്കേണ്ടത് ആ ഓക്കേ ഓക്കേ ഓക്കേ ശരി ശരി ചേട്ടാ ഒക്കെ എന്നാൽ